ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായിട്ടുള്ള വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്കിപ്പോൾ കോഴിക്കോടൻ ബിരിയാണി ദം ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ അത് നമുക്ക് ഇവിടെ അസാധാരണമായിട്ടുള്ള ഒരു വിഭവമാണ് കാരണമെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പല രീതിയിലുള്ള ചേരുവകൾ ഇവര് ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള ചേരുവകൾ ഒക്കെ വ്യത്യസ്തരമായിട്ടുള്ള ഒരു ചേരുവകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഭക്ഷണം നമുക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പലരീതിയിലുള്ള ചേരുവകൾ ഉണ്ട് ചേരുവകൾ എന്താണെന്നും നമുക്ക് അത് അവര് വെളിപ്പെടുത്തി തരില്ല കാരണം അത് അവരുടേതായിട്ടുള്ള സീക്രട്ട് കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെത്തന്നെ ബിരിയാണി സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ മുസ്ലീംസ് ഏരിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഏരിയയിൽ ആണ് കൂടുതൽ ആയിട്ടും ബിരിയാണികൾ വെയ്ക്കുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരം പലതരം ബേക്കറികൾ ഉണ്ട് ഇപ്പോൾ ബേക്കറികളിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൻ ഹലുവ കോഴിക്കോട് ഹലുവ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര ഹലുവ തന്നെയാണ് അപ്പോൾ എല്ലാവരും അതായത് പല രീതിയിൽ അവര് എന്താ പറയുക ഓരോ എന്താ പറയുക ഓരോ ടൈപ്പ് ഹലുവയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പറയും ആ നിങ്ങൾ കോഴിക്കോട് നിന്നല്ലേ കോഴിക്കോട് ഹലുവ എന്താ കൊണ്ട് വരാത്തത് എന്ന് അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഹലുവ തന്നെയാണ് കേട്ടോ